ശൂന്യാകാശവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയെന്നു പറയുമ്പോൾ ഒന്ന് ഇൻറ്റർസ്റ്റെല്ലാർ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നു വെച്ചാൽ അതിൻ്റെ ഡയറക്ഷൻ ഒരു വളരെ മികച്ചൊരു ഡയറക്ഷനാണ് പിന്നെ അതിൽ കവർ ചെയ്യുന്ന സ്പെയ്സിൻ്റെ കാര്യങ്ങളും ഉദാഹരണത്തിന് അദ്ദേഹം ഗ്രാവിറ്റി എന്ന പ്ര പ്രവാസത്തിലൂടെ ഒരു കോഡിനേറ്റ്സ് കണ്ടെത്തുകയും കോഡിനേറ്റ്സ് അതായത് മാപ്പിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തുകയും അതു തേടി പോകുമ്പോൾ നാസയുടെ ഹെഡ് കോർട്ടേഴ്സിൽ എത്തുകയും പിന്നെ അവിടെ നിന്നു സ്പേസിലോട്ടുള്ള സഞ്ചാരവുമാണ് സിനിമയുടെ ഉള്ളടക്കം ഉള്ളടക്കം എന്തെന്നു വെച്ചാൽ മനുഷ്യരാശിയുടെ അവസാനം അതായത് മനുഷ്യനു ഭൂമിയിൽ താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയും അപ്പം അവിടെ നിന്നു മനുഷ്യൻ രക്ഷപ്പെട്ടു വേറൊരു ഗ്രഹത്തിലോട്ടു പോകുകയും വേണം അപ്പോൾ അതിനു സ്യൂട്ടബിളായിട്ടുള്ള അതിന് സാധ്യമാകുന്ന ഗ്രഹങ്ങൾ തേടി സിനിമയുടെ നായകൻ പോകുകയാണ് അപ്പം അതു മനുഷ്യരാശിയെ പറ്റി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്ത് അത് അത് വളരെ വളരെ ഇംപോർട്ടൻറ്റായിട്ടുള്ള കാര്യമാണ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ പ്രിയങ്കരിയായ മകളെ ഭൂമിയിൽ ആക്കിയിട്ടാണ് പോകുന്നത് അപ്പം അദ്ദേഹത്തിനു പോകാതിരിക്കാൻ സാധിക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ ജോലി വേറാർക്കും ചെയ്യാൻ പറ്റില്ല അദ്ദേഹം പോയാലേ ആ ജോലി നടക്കത്തുള്ളൂ അങ്ങനെ നടന്നെങ്കിലെ മകൾക്ക് ഒരു ഭാവിയുള്ളൂ അപ്പം മകൾക്കെന്നു മാത്രമല്ല മനുഷ്യരാശിക്കു തന്നെ ഒരു ഭാവിയുള്ളൂ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ബഹിരാകാശത്ത് പോകുകയും ചെയ്യുന്നത് അതും ഓം ഹോളെന്ന സാ സ സംഗ സംഭവത്തിലൂടെ വേറൊരു ഗാലക്സിയിലോട്ടാണ് പോകുന്നത് അപ്പം അവിടെ ആ ഗാലക്സിയിൽ നിന്നു വേണം നമുക്ക് താമസിക്കാൻ യോജ്യമായ ഗ്രഹങ്ങൾ കണ്ടെത്താൻ അങ്ങനെ പോകുന്നതിനിടയ്ക്കുള്ള സംഘർഷങ്ങളും സങ്കീർണ്ണതകളും അവസാനം ഈ സ്പേസ് ഷിപ്പിനു ബഹിരാകാശ വാഹത്തിൻ വാഹനത്തിനു പോകാൻ ഉള്ള ഫ്യുവൽ ഇല്ലാതാകുകയും ആ നായകൻ തമോകാരത്തിനകത്തേക്ക് ആ ഗാലക്സിയിൽ ഉള്ള ഒരു തമോകാരത്തിനകത്തേക്കു വീഴുകയും അവിടെനിന്ന് ഒരു ബ്ലാക്ക് ഹോളിൻ്റകത്തുള്ള ഒരു കോഡ് ഡി കോഡ് ചെയ്യുകയും അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഈ നായകൻ്റെ കൂടെ ഒരു റോബോട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് നല്ല എക്സ്ട്രീമായിട്ടുള്ള റോബോട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ പോകുകയും അങ്ങനെ ആ ബ്ലാക്ക് ഹോളിൻ്റെ അകത്തുള്ള രഹസ്യം ചുരുളഴിക്കുകയും അതു ഭൂമിയിലേക്കു മകൾക്ക് ഫിഫ്ത്ത് ഡയമെൻഷൻ അതായത് ഫിഫ്ത്ത് ഡയമെൻഷൻ ബീയിങ്ങ്സ് ഉണ്ടാക്കിയ ഒരു ഡിവൈസിൻ്റെ അക ഡിവൈസിലൂടെ ഗ്രാവിറ്റേഷനൽ വേവ് ഉപയോഗിച്ച് ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്യുന്നു അപ്പം ആ കോഡ് ഉപയോഗിച്ച് മകൾ ഒരു ബഹിരാകാശ കേന്ദ്രം ഉണ്ടാക്കുകയും അങ്ങനെ മനുഷ്യരാശിയെ ഭൂമിയിൽ നിന്നും മറ്റ് മറ്റെ ഗ്രഹത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എത്തിക്കാൻ പറ്റുന്ന ഒരു വാഹനം ഉണ്ടാക്കുകയും ചെയ്യുന്നു അതാണ് സിനിമയുടെ ഉള്ളടക്കം അവസാനം അച്ഛനും മകളും ഒന്നിക്കുകയും ചെയ്യുന്നു അച്ഛൻ മുപ് കുറച്ചു മണിക്കൂറുകൾ കഴിഞ്ഞു ഭൂമിയിൽ എത്തുമ്പോൾ മകൾക്ക് ഏകദേശം തൊണ്ണൂറ് വയസ്സാകുകയും അങ്ങനെ അതൊരു ഇൻസ്പെയറിങ് സ്റ്റോറിയാണ് അത് മനുഷ്യരുടെ ഇമോഷൻസും പിന്നെ സ്പേസിൻ്റെ എക്സ്ട്രീം സയൻസും എല്ലാം കൂടിക്കലർന്നൊരു സിനിമയാണ് ഇൻറ്റർസ്റ്റെല്ലാർ